ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രം കുറിക്കുന്നത് സിന്ധുനദീ സംസ്കാരത്തിലൂടെയാണ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതിൽ രണ്ടാം സ്ഥാനം നമ്മുടെ രാജ്യത്തിനാണ് ഞങ്ങളെ രാജ്യത്ത് പലതരത്തിലുള്ള മതങ്ങളും അവർ അവരുടെ മതത്തിന് ആവശ്യമായി പൗരത്തം മൗലിക അവകാശങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞൊരു രാജ്യമാണ് പിന്നെ എല്ലാ മതക്കാരും തമ്മിലുള്ള സഹകരണങ്ങളും നല്ലതും സ്നേഹമുള്ള ഒരു രാജ്യമാണ് പിന്നെ അബ്ദുൽ കലാം സാറ് വെള്ളക്കാരൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ ഹിന്ദു ജാതിയെയും മുസൽമാൻ ജാതികൾക്കും വേണ്ടി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഹിന്ദു ഇല്ല മതം മതമില്ല ജാതിയില്ല എല്ലാവരും ഒരുപോലെയെന്ന ഒരു രൂപമാണ് എല്ലാ മതത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളും കൊടുക്കുന്നുണ്ട് എല്ലാ മതക്കാരും അവരവരുടെ മതത്തിന് അനുസരിച്ച് എല്ലാ മതക്കാറും ആ മറ്റുള്ളവരുടെ മതത്തിനനുസരിച്ചുള്ള പ്രാധാന്യവും നൽകുന്നുണ്ട് ഹിന്ദു മുസ്ലിം മതത്തിൽ സൗഹൃദങ്ങളും കൂടുതലാണ്

ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മളെ ഇന്ത്യൻ മഹാ യുദ്ധം നമ്മുടെ മഹാത്മാ ഗാന്ധി ഗാന്ധിജി അവരുടെ ചരിത്രം ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അവരുടെ ചരിത്രത്തിലൊക്കെ അവരൊക്കെ എല്ലാം മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർ അന്നവർ ഇന്ത്യൻ ആ ചരിത്രത്തിലായി ഇതുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് ഉണ്ടാവില്ലായിരുന്നു എല്ലാം കൊണ്ടും സൗഹൃദവും സമാധാനവും നീതിയും പുലർത്തിക്കൊണ്ട് പോകുന്ന രാജ്യമായി കണക്കാക്കുന്നുണ്ട് എല്ലാത്തിനും അതിൻററെേതായ അതിൻറേതായ എല്ലാ വിധ സപ്പോർട്ടുകളും കാര്യങ്ങളുംകൂടെ കൂടി പോകുന്ന ഒരു രാജ്യമാണ് എല്ലാ മതത്തിനും അവർക്കുള്ള അവകാശങ്ങൾ ഉണ്ട് അവർക്കുള്ള മൗലിക അവകാശങ്ങളും എല്ലാ അവകാശങ്ങളും അവർ എടുക്കുന്നുമുണ്ട് അവ എല്ലാ അവകാശങ്ങളിലും അവർക്കതായ സ്ഥാനങ്ങളുമുണ്ട് എല്ലാത്തിലും അവർക്ക് എല്ലാ മതക്കാാരും തമ്മിലുള്ള സൗഹൃദങ്ങൾ അതും അതിലും വലുതാണ് എല്ലാ മതക്കാരും തുല്യരാണ് ജാതിയില്ല മതമില്ല എല്ലാവരും ഒന്ന് ഒരുപോലെയുള്ള ലെവലാണ്